പരിവാഹൻ സേവ ആപ്പ് വഴി ഞാൻ അടുത്തിടെ ലേണേഴ്സും ലൈസൻസ് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ എൻ്റെ അപേക്ഷയുടെ നില സംബന്ധിച്ച് ഒരു സ്ഥിതീകരണമോ അപ്ഡേറ്റോ എനി ഒന്നും എനിക്കിതുവരെ ലഭിച്ചിട്ടില്ല കുറേ കുറച്ച് സമയമായതിനാൽ എൻ്റെ അപേക്ഷ ശരിയായി പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് എനിക്കൊരു ആശങ്കയുണ്ട് ഇപ്പോഴൊരു അംഗീകാരമോ പരിശോധന അപ്ഡേറ്റോ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ ആശയ വിനിമയത്തിൻ്റെ അഭാവം പുരോഗതിയെക്കുറിച്ച് എനിക്ക് ഉറപ്പില്ല ഞാൻ അറിഞ്ഞിരിക്കേണ്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ കാല താമസമോ ഉണ്ടോ എന്നു മനസ്സിലാക്കാൻ എനിക്ക് നല്ല ആശങ്കയുണ്ട് എൻ്റെ അപേക്ഷ സുഖമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അത് പ്രോസസ്സിലാണോ അതോ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തുടർ നടപടി ആവശ്യമാണോ എന്നു പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ലേണേഴ്സ് ലൈസൻസ് പരിശോധിച്ച് ഉറപ്പ ഉറപ്പാക്കുന്നതിനും ഇഷ്യൂ ചെയ്യുന്നതിനുമായി നിലവിലെ സ്റ്റാറ്റസും പ്രതീക്ഷിക്കുന്ന ടൈം ലൈനും സംബന്ധിച്ച ഏത് വിവരം ഏത് വിവരവും ഞാൻ അഭിനന്ദിക്കുന്നു സാഹചര്യം വ്യക്തമാക്കുന്നതിനുള്ള നിങ്ങളുടെ സഹായം വളരെ വിലപ്പെട്ടതായിരിക്കും